നമ്മടെ മാ അച്ചടി മാധ്യമങ്ങളും അതേപോലെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം പറയാൻ പറഞ്ഞ് കഴിഞ്ഞാൽ അച്ചടി മാധ്യമങ്ങൾ പഴയതാന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് ഇന്ന് കഴിഞ്ഞ പ്ര കാര്യങ്ങൾ നാളെയോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ നമുക്ക് നമ്മളെ അറിയിക്കാൻ പറ്റൂളു അതിന് മറിച്ച് ഇപ്പം നമ്മൾടെ ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കി ശ്രവ്യ മാധ്യമങ്ങളെന്ന് പറയണമ്പോ ഇപ്പം നടന്ന കാര്യങ്ങൾ പോലും നമുക്കിപ്പം അറിയാൻ പറ്റും കാരണം ടെക്നോളജി അത്രയും വളർന്ന കാര്യം കൊണ്ട് എപ്പം എവിടെ എന്ത് കാര്യം നടന്നാലും ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ വീഡിയോസാണെങ്കിലും ഓഡിയോസാണെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ എത്താൻ പറ്റും സാറ്റലൈറ്റ് വഴി പിന്നെ അപ്പ അപ്പോ ഉള്ള റെക്കോർഡിങ്ങ് പിന്നെ യൂട്യൂബ് ചാനൽ അങ്ങനെ അങ്ങനുള്ള കാര്യങ്ങളെക്കെ വഴി എന്ത് എവിടെ നടന്നാലും ഇപ്പം പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡിങ്ങും കാര്യങ്ങളും നമുക്ക് കിട്ടാൻ പറ്റും അതിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടന്നാൽ ഇപ്പോൾ ഇസ്രായേലായാലും ഇപ്പോ ആഫ്രിക്കയിലായാലും അൻറ്റാർട്ടിക്കയിലായാലും എവിടെ എന്ത് നടന്നാലും നമുക്കാ കാര്യങ്ങൾ ഉടനെ നമുക്ക് അതിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ നെറ്റിൽ കേറി നോക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറേ അധികം യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ചാനലിലൊള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓരോ ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ചാനലുകൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് അവർ മിക്കവാറും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആക്കി വെക്കും അത് വേറൊന്നും കൊണ്ടല്ല അവർക്ക് അവരുടെ ഒരു എന്താ പറയുക അവർക്ക് അവരുടെ ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒക്കെ ചാനൽ കുറച്ച് മുന്നോട്ട് നിക്കണമെന്ന രീതിയിൽ ഓരോ ചാനലും എത്ര പെട്ടെന്ന് വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം അറിയിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മളെ കാര്യങ്ങൾ അറിയിക്കും